നമ്മൾ ആ എൻ്റെ നാട് കൈനഗിരിയാണ് കൈനഗിരിയിലെ പണ്ടത്തെ അവസ്ഥ എന്നു പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അലനൊക്കെ പഠിക്കുന്ന കാലത്ത് അത് ഏകദേശം രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിലാണ് അന്ന് മൂത്രപ്പുരയോ കുടിവെള്ളമോ പുസ്തകങ്ങളോ നല്ല മേശകളോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മൂത്രപ്പുര പോയിട്ട് ഒരു പുര പോലും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ മൂത്രമൊഴിച്ചു കൊണ്ടിരുന്നത് തോടിൻ്റെ തീരത്തിലും ആറിൻ്റെ തീരത്തിലും മരത്തിൻ്റെ ചുവട്ടിലുമൊക്കെയായിരുന്നു കുടിവെള്ളം കുടിവെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് തിളപ്പിച്ച് കൊണ്ടുപോകണമായിരുന്നു പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുടെ കഴിഞ്ഞ വർഷം അതിനുമുമ്പുള്ള വർഷം ഉപയോഗിച്ച പുസ്തകങ്ങൾ നമ്മൾ എടുക്കുകയായിരുന്നു നമുക്ക് അത് വാങ്ങാൻ ശേഷിയില്ലായിരുന്നു അതുകൊണ്ട് എടുക്കുകയായിരുന്നു പിന്നെ പറയാനുള്ളത് മേശയും കസേരകളും നാലുകാലുള്ള കസേരയും മേശയുമല്ലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് മൂന്നുകാലും രണ്ടുകാലുമുള്ള കസേരയും മേശകളുമായിരുന്നു ആ കസേരകളിൽ ഇരുന്നാണ് ഞങ്ങൾ പഠിച്ചത് ഉള്ള മേശകളിലും കസേരകളിലും പൂർവ്വ വിദ്യാർഥികൾ ഇട്ട തുളകളുള്ളതിനാൽ എക്സാം എഴുതുമ്പോൾ എക്സാം ഷീറ്റിൽ ആൻസർ ഷീറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേപ്പറിൽ തുള വീഴുമായിരുന്നു ആ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയത് എന്നാൽ ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു വളരെ മാറിയിട്ടുണ്ട് സാമ്പത്തികമായി സ്കൂളുകളെല്ലാം ഉന്നമനത്തിൽ എത്തിയിരിക്കുന്നു സർക്കാരിൻ്റേയും ഏത് സർക്കാരെന്ന് എനിക്ക് അറിയില്ല കേന്ദ്ര സർക്കാറായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ അവ അതോ നല്ലവരായ നല്ല മനുഷ്യരുടെ പ്രൈവറ്റ് മനുഷ്യരുടെ സഹായം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നല്ല സൗകര്യങ്ങളുള്ള വീടുകളൊക്കെ ഈ സ്കൂളുകളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നല്ല മൂത്രപ്പുരയും മൂത്രപ്പുരയെന്ന് ഇനി പറയാൻ പാടില്ല വാഷ്റൂംസ് നല്ല വാഷ്റൂംസുണ്ട് നല്ല ഒരു ഡ്രിങ്കിങ് വാട്ടറുണ്ട് പുസ്തകങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് നോട്ടുകളുണ്ട് നല്ല ടേബിൾ ആൻഡ് ചെയറുമെല്ലാമുണ്ട് നമുക്ക് ഇതൊക്കെ മെച്ചപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമുക്ക് സാമ്പത്തികമായി ഉന്നമനത്തിന് നിൽക്കുന്ന ആൾക്കാർ സാമ്പത്തികമായി സ്കൂളുകളെ സഹായിക്കുക എന്നതാണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റേയും സംസ്ഥാന സർക്കാരിൻ്റേയും സഹായം ഇതിൽ നമുക്ക് നേടാവുന്നതാണ് അവരുടെ സഹായമില്ലാതെ വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് തകർക്കാനോ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല ഒരു ഒരാൾ മാത്രം വിചാരിച്ചാൽ എനിക്ക് നാളെ എൻ്റെ സ്കൂൾ നശിക്കണം നന്നാക്കിയെടുക്കണം എന്നു വിചാരിച്ചാൽ നടക്കില്ലല്ലോ എൻ്റെ സർക്കാർ തീരുമാനിക്കണം സർക്കാരിൽ നിന്ന് ഫണ്ട് വരണം ഫണ്ട് എത്തണം ഫണ്ട് വരുമെന്നു പറഞ്ഞാൽ ഫണ്ട് വരണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു മൂത്രപ്പുരയും പുസ്തകങ്ങളും കസേരകളും മേശകളുമെല്ലാം നമ്മുടെ സ്കൂളുകളിലുണ്ട് എൻ്റെ ഞാൻ പഠിക്കുന്ന കാലത്തിൽ അതൊന്നും ഇല്ലായിരുന്നു മൂത്രപ്പുര പോയിട്ട് ഒരു പുര പോലുമില്ലായിരുന്നു ഞങ്ങൾ മൂത്രമൊഴിച്ചിരുന്നത് തോടിൻ്റെ തീരത്തും ആറിൻ്റെ തീരത്തും മരത്തിൻ്റെ തീരത്തുമായിരുന്നു കുടിവെള്ളം പോയിട്ട് വെള്ളം പോലുമില്ലായിരുന്നു ഞങ്ങൾ തോട്ടിലെ വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് ആറ്റിലെ വെള്ളം അതിനാൽ തന്നെ ഇവിടെ ഒരുപാട് കാൻസർ രോഗികളുണ്ട് പുസ്തകങ്ങളിൾ പറഞ്ഞതുപോലെ സഹോദരങ്ങളുടെ പഴയ പുസ്തകങ്ങൾ കീറിയതും പറിഞ്ഞതുമായ പുസ്തകങ്ങൾ ഉപയോഗിച്ചും തുളയുള്ള മൂന്നു കാലുള്ള മേശകളും കസേരകളും ഉപയോഗിച്ചും മെച്ചപ്പെടുത്താൻ കേന്ദ്രത്തിൻ്റെ സഹായവും നല്ലവരായ മനുഷ്യരുടെ സഹായവും ഉണ്ടായിരിക്കണം പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളുമുണ്ടായിരിക്കണം നന്ദി